ഞാനുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റായാണ് മാഷേ വന്നേ സാറേ ഇത്തിരി താമസിച്ചാണ് വന്നേ അതെ നമ്മുടെ ഒരു ടോമൂന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റാഫുണ്ടല്ലോ ആ സ്റ്റാഫിന് ചെറിയ ആക്സിഡൻറ് ഉണ്ടായി ഏറ്റുമാനൂർ വെച്ച് അപ്പം അവിടുന്ന് അങ്ങനെയവർ ഫോണ് വിളിക്കേ ഇച്ചിരി ഇതായിരുന്നു അപ്പം അവിടുന്ന് ഫോൺ കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലാണ് വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് അവിടെയുള്ള രണ്ട് സ്റ്റാഫിനെ വിളിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ എന്നാൽ ഇന്ന് ഫീൽഡിൽ ആൾക്കാർ കുറവാ അങ്ങനെയൊരു ഇത് ഈ ഒരു ആക്സിഡൻറ്റ് അത് അറീ തന്നു പക്ഷെ നമ്മുടെ സാഹചര്യം സാഹചര്യമങ്ങനെ പറ്റിപ്പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഒരാൾ പോയി പിന്നെയവിടുന്ന് ഈ അവർ ഈ ആക്സിഡൻറ്റ് പറ്റിയ കാറും ഡേറ്റും ടോമിൻ്റെ വീട്ടിലറിയിക്കാൻ വേണ്ടി ആൾക്കാർ പോയി അങ്ങനെ ഒന്ന് ഇച്ചിരി പൈസ അറേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേര് കൂടി ചെയ്യാവുന്നത് പിന്നെ അറിയിക്കാൻ പറ്റിയില്ല സാറിനെ ആ ശരിയാ ആ അതെ അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ അതെ അതെ

തിരുത്തീട്ടില്ല അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ അതിരമ്പുഴയും കുടമാളൂരും പോവുന്ന ആൾക്കാർ ആ അവരുടെ പെർഫോമൻസ് ശരിയല്ല അവർ കറക്റ്റായിറ്റ് ഡ്യൂട്ടിക്ക് വരുകയാണോ വരുന്നുപോലും ഇല്ല കാരണം ഒരിടത്തും പോയി ഞാൻ പലയിടത്തും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവരെ ആ അപ്പോൾ അവർ ഓരോ നമ്മുടെ ഓരോ കൂട്ടത്തിലവർ പോവുന്നില്ലെന്നുള്ളതാണ് അത് ഇല്ല അത് ഞാനവരോട് അവരോട് പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞു ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനൊക്കെ കുറച്ച് ദിവസമായിട്ട് നോക്കുകയായിരുന്നു റിപ്പോർട്ട് ചെയ്യാതെ എന്തേലും എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അത് രക്ഷയില്ല ഇനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനുള്ള ആൾ പ്രെറ്റി അറെയ്ഞ്ച് ചെയ്ത് നോക്കണം

അത് വെക്കേണ്ട വേറൊരു ടീമിനെ വെച്ചാൽ മതി ഇനി ഇപ്പോൾ ഇവരെക്കൊണ്ട് നടക്കുമെന്ന് തോന്നണില്ല ആ കിട്ടും കിട്ടും കിട്ടും തീർച്ചയായും ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ